ഞാൻ ചെന്നൈയിൽനിന്ന് വിളിക്കുകയായിരുന്നു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സീ ഫുഡ്ഡ് കിട്ടുന്ന റെസ്റ്റൊറെന്റ് ഏതാ ഉള്ളത് നല്ല പ്ളേസ് എവിടെയാണ് അങ്ങനെയൊക്കെ അറിയാനായിട്ട് വിളിക്കുകയായിരുന്നു

ആ കായലിനോട് ചേർന്നുള്ളൊരു റെസ്റ്റൊറെന്റ് ആണ് നോക്കുന്നത് സീ ഫുഡ്ഡ് കിട്ടണം അങ്ങനത്തെ കുറച്ചിതൊക്കെ ഓക്കെ

ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല

ആ ഓക്കെ

ഒരു റ്റു ഡേയ്സിനുള്ളിൽ വരും അപ്പോൾ ഫുഡ്ഡും കാര്യങ്ങളൊക്കെ നല്ല

അവിടത്തെ ഫുഡ്ഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണോ ആ ഓക്കെ ആ ഞങ്ങൾ ചൂസ് ചെയ്തിട്ട് പറയാം